പ്രപഞ്ചത്തെക്കുറിച്ച് ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത ഒന്നാണ് ബെർമൂഡ ട്രയാങ്കിളുടെ സത്യാവസ്ഥയെക്കുറിച്ച് പലതരത്തിലുള്ള പഠനങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനെ പറ്റി അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്നും മറ്റു ഗ്രഹങ്ങളിലെ ജീവസാന്നിദ്ധ്യത്തെ പറ്റിയും ഒക്കെ ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു ഗ്രഹങ്ങളിലുള്ള മൂലകങ്ങളുടെ സാന്നിദ്ധ്യവും അങ്ങനെയെങ്കിൽ അത് ഉപയോഗിച്ച് പുതിയ തരത്തിലുള്ള കണ്ടു പിടുത്തങ്ങൾ ഒക്കെ ഇനിയും നടത്തേണ്ടതായിട്ടുണ്ട്